എങ്ങനെയാണ് ആരോഗ്യപരിപാലനം കൂടുതൽ കാര്യക്ഷമത ആക്കാമെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഹോസ്പിറ്റലുകളുടെ തന്നെ കുറേ ഡോക്ടഴ്സ്മാരെ അപ്പോയിന്റ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ കുറച്ച് ഇംപ്രൂവ് ചെയ്യിക്കുകയും ചെയ്യുക പിന്നെ നേഴ്സുമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക പുറത്ത് പോയി മരുന്ന് വാങ്ങുക വാങ്ങേണ്ട ഒരു അവസ്ഥ വരാതെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചുരുങ്ങിയ ചിലവിൽ മരുന്നുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക